അ ഹലോ മഞ്ജുഷ ചേച്ചി അല്ലേ ഹലോ മഞ്ജുഷ ചേച്ചിയല്ലെ ചേച്ചി ഞാനായിരുന്നു ഫാത്തിമ നാളെ ആണെങ്കിൽ ഒരു കുറച്ച് എക്സ്ട്രാ ടൈമും കൂടി നിൽക്കാൻ പറ്റുമോ ഒരു ഒരഞ്ചു മണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കാണെങ്കിൽ മറ്റേ ചേട്ടൻ്റെ മാമൻ മരിച്ചിട്ട് അങ്ങോട്ട് പോകണമായിരുന്നു

പിള്ളേരെ കൊണ്ടു പോകാതെ പോകാനായിരുന്നു ഒരഞ്ചു മണി തൊട്ട് നിന്നാൽ മതി പ്രത്യേകിച്ചൊന്നും പണിയൊന്നും ഇല്ല പ്രത്യേകിച്ച് പിള്ളേരെ ഒന്നു നോക്കി പിള്ളേരെ ഒന്ന് കുളിപ്പിച്ച് പിന്നെ അവർക്കൊന്ന് ഫുഡ്ഡൊക്കെ ഒന്നെടുത്തു കൊടുത്താൽ മതി ഒരഞ്ചര കഴിഞ്ഞാണെങ്കിലൊക്കെ നിൽക്കുമോ ഞാനെത്ര പൈസയാണ് തരാം ഞാനെത്ര പൈസ തരാമായിരുന്നു ആ ഇപ്പം ഞാനെത്ര പൈസ തരായിരുന്നു ഒരഞ്ചര കഴിഞ്ഞെങ്കിലും നിൽക്കാൻ പറ്റുമോ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടു പോയിട്ട് അവിടെ കൊണ്ടു പോയി കഴിഞ്ഞിട്ടായാലും പ്രത്യേകിച്ചൊരു പണിയും ചെയ്യേണ്ട കൊച്ചിന് ഫുഡ്ഡും കൊടുത്ത് ഒന്ന് ജസ്റ്റൊന്ന് കുളിപ്പിച്ചെടുത്താൽ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ മതി ഇപ്പോൾ എന്തു ചെയ്യാൻ ഇവിടെ ആ ആ അവിടെ അങ്ങോട്ടിപ്പം പക്ഷെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ആളെയല്ലേ നിർത്താൻ പറ്റുകയുള്ളു പിള്ളേരുടെയൊക്കെ കാര്യമല്ലേ അപ്പം അതു കൊണ്ടാണ്

എങ്ങനെയെങ്കിലുമൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു വരാൻ പറ്റുമോയെന്ന് ഒന്നു നോക്കാമോ അത് വേറെ ആരെയും വിശ്വസിച്ച് പിള്ളേരെ ഏൽപ്പിക്കാൻ പറ്റില്ലാത്തതു കൊണ്ടാണ് ആ എന്നാൽ ശരി ഒന്നെങ്ങനെയെങ്കിലും ജസ്റ്റ് നോക്കാൻ നോക്കാം ആ ശരി ശരി ആ ശരി ആ ശരി